ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു

അതെ ഈ സൈറ്റിൽ നിന്നാണെ അത് പിന്നേ ആ ക്യാമറയിലേ ഞാൻ ഓഡർ ചെയ്ത സമയത്ത് ഞാനതിനകത്ത് വാറൻറ്റി കവറേജ് ഇഷ്യൂ ആഡ് ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നെ ഞാനത് ശ്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതു കൊണ്ടാണ് അറിയാൻ പറ്റുമോ അതോ മ്മ് നിക്കോണിൻ്റെ ക്യാമറയായിരുന്നെ വാങ്ങിയത് ആ അപ്പോൾ എന്നത്തേക്ക് ഡെലിവറി ആകും

ഓക്കേ വാറൻറ്റി ഒക്കെ ഏഡ് ആയിട്ടുണ്ടല്ലേ ആ അതിൻ്റെ വാറൻറ്റി എത്ര എത്ര വർഷത്തേന് ഉണ്ടാകും ആ ഓക്കെ ഓക്കെ ഈ ഗ്യാരട്ടി കാലയളവിൽ എന്തൊക്കെയാണുൾപ്പെടുത്തിയിരിക്കുന്നെ അതിനകത്ത് എല്ലാറ്റിനും കിട്ടുമോ ലെൻസിനൊക്കെ ലെൻസിനൊക്കെ വാറൻറ്റി ഉള്ളതാണോ ഓക്കെ ആ ഈ ഗ്യാരണ്ടിയുടെ ആവശ്യം വരുമ്പോളെ എന്തെങ്കിലും പ്രത്യേക രേഖകളാവശ്യമുണ്ടോ ആ ഓക്കെ മേടിച്ചതിൻ്റെ ആ ബുക്കല്ലെ വരുന്നതിൻറ്റെ ആ വാറൻറ്റി കാർഡിൽ ആ ആ ഓക്കെ ഓക്കെ കാമറയിൽ യാതൊരു പ്രശ്നം ഇല്ലാത്ത പക്ഷം ഗ്യാരൻറ്റി ഉപയോഗിക്കാവുന്നതല്ലേ പിന്നെ അതു നമുക്കാഡ് അതിക്കൂ ഈ ഫുൾ ഈ രണ്ടു വർഷമല്ലെ അവർ ഗ്യാറൻറ്റി വാറൻറ്റിയായിട്ട് തരുന്നത് ആ ഓക്കെ ഓക്കെ ആ ഈ ഗ്യാരൻറ്റി കാലയളവിൽ ബാ ബാട്രിയും ലെൻസും ബാഗ് മുതലായ അനുബന്ധ ഉപകരങ്ങളുൾപ്പെടെയോ അ ഹ ഹ അല്ല ഈ സർവ്വീസൊക്കെ നിങ്ങളുടെ അവിടെ തന്നെ ആണോ അതോ നാ ആ വാറൻറ്റി വെച്ച് നമുക്ക് ഇവിടെ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഷോ റൂമിൽ തന്നെ ചെയ്താലും പെറ്റ് മതിയോ അ ഹ അ ഈ വാറൻറ്റി കാർഡുപയോഗിച്ചന്നല്ലെ ഇവിടെ ഫുള്ള് ഇതു ചെയ്യുന്ന നമ്മൾ ആ സർവ്വീസ് ആ ഓക്കെ ഇത് എന്നത്തേക്ക് ഡെലിവറി ആകും ഡെസ്പാച്ച് ആയിട്ടുണ്ടോ ആ ഞാനീ ക്യാമറ ഇൻസ്റ്റാൾമെൻറ്റാണെ ഇ എം ഐ ഇ എം ഐ ഇട്ടാണ് എടുക്കുന്നതെ അപ്പോൾ ഇ എം ഐ തീരുന്നിടം വരെ ഇ എം ഐ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി ഇ കെടക്ക് ഉണ്ടാവത്തില്ലേ അ ഹ ഹ അല്ല ഈ വാറൻറ്റി കാർഡുപയോഗിച്ചെനിക്ക് നിങ്ങളുടെ ഷോ റൂമിൽ നിന്നല്ലാതെ വേറെ ഷോ റൂമിൽ നമ്മൾ റിപ്പയർ ചെയ്താൽ വേറെ പൈസയോ കൊടുക്കേണ്ടി വരുമോ ആ അ ആ അല്ല അതെനിക്ക് അ ചോദിച്ചു തന്നെ ഉള്ളു അല്ല അന്നത്തേ ഞാൻ ഓഡർ ചെയ്ത സമയത്ത് വാറൻറ്റി ആഡായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനീ കോൾ വിളിച്ചതു തന്നെ ആ നിങ്ങൾക്കീ ക്യാമറയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഷൊ ഷോപ്പിൽ ഓക്കെ ആ വേറെ ഉണ്ടല്ലേ ആ ഓക്കെ ശരി എന്നാൽ